ഇപ്പോൾ ഇന്ത്യയിലെ ആരോഗ്യസംരക്ഷണ സംവിധാനം എന്ന് എങ്ങനെയുള്ളതാന്ന് ഒക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചുറ്റുമുള്ള ആശുപത്രികളിൽ തന്നെ എടുത്ത് കഴിഞ്ഞാല് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ മെഡിക്കൽ കോളേജുണ്ട് കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ എടുത്ത് കഴിഞ്ഞാല് അതിൻ്റെ ഉള്ള ചുറ്റുമുള്ള പരിസരം വരെ വൃത്തിഹീനമായിട്ടാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നല്ല രീതിയില് വൃത്തിയാക്കുവാണെങ്കില് ആ രോഗങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെ നി കൂട്ട് നിൽക്കുന്നവർക്കും രോഗികൾക്കാണെങ്കിലും കുറയും അപ്പോൾ അതൊന്ന് നമ്മുടെ സർക്കാരും കാര്യങ്ങളുമൊക്കെ ഇടപെട്ട് ഇടപെടുവാണെങ്കില് നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളുമൊക്കെ ചെ വരുത്താൻ വേണ്ടി സാധിക്കും പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുള്ള ഒ പി യില് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂവും കാര്യങ്ങളൊക്കെയും ആണ് അപ്പോൾ ഒരാൾക്കാര് മാത്രാണ് അവിടുള്ള സ്റ്റാഫും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിന് കൂടുതലായിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ചില ചില ഓപ്പറേഷനും കാര്യങ്ങളുമൊക്കെ അവര് തന്നെ ക്യാഷും കാര്യങ്ങളുമൊക്കെ വല്ലാണ്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാര് സ്ഥാപനങ്ങളില് തന്നെ ചിലവ് കാര്യങ്ങളുമൊക്കെ കൂടുതലാണ് പിന്നെ അവരുടെ സേവനം വലിയ രീതിയില് എന്താ പറയുക നല്ല രീതിയില് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ സർക്കാര് സ്ഥാപനങ്ങളിലുള്ള നഴ്സുമ്മാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എന്തോ നമ്മക്കെന്തോ ദാനം കിട്ടിയിട്ട് വന്നിട്ട് വെറുതെ ഇപ്പോൾ എന്താ പറയുക വെറുതെ അസുഖത്തിന് കാണിച്ചിട്ട് പോകുന്ന ആ ഒരു രീതിയാണ് അവർക്കുള്ളതെന്ന് വേണമെങ്കിൽ പറയാം